ഇപ്പോൾ വയനാട് ജില്ലയിൽ അതായതൊരു പ്രാദേശിക വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആൾക്കാരെടുക്കുന്നത് ഈ പ്ലംബിംഗ് ഇലക്ട്രീഷ്യൻ അങ്ങനത്തെ തൊഴിൽ മേഖലക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളവയാണ് എടുക്കുന്നത് കൂടുതലായിട്ടും കാരണമെന്നുവെച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ഒക്കെ പഠിക്കുവാണെങ്കിലെന്നു വെച്ച് കഴിഞ്ഞാൽ അത് തുടർ പഠനത്തിനു വേണ്ടിട്ടാണവർ അങ്ങനെ എടുക്കുന്നത് പക്ഷേ എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചുനോക്കുവാണെങ്കിൽ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ പഴ പഠിക്കുകയും ചെയ്യാം അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോൾ കൂടുതലായിട്ടും നമ്മളെ ഐ റ്റി ഐ പോളി അങ്ങനത്തെ ഏരിയാസിലേക്കാണ് പോകുന്നത് അപ്പം കാരണം എന്നു വെച്ച്കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പഠനത്തോടൊപ്പം ജോലി അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഐ റ്റി ഐ ൽന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിവിധതരം കോഴ്സ് കാര്യങ്ങളൊക്കെയുണ്ട് ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പിന്നെ മെക്കാനിക്കല് പിന്നെ വരുന്നത് ന്ന് വെച്ചുകഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ പ്ലംബറ് അങ്ങനെ കുറെ തൊഴിൽ മേഖലകളൊക്കെയുണ്ട് അപ്പോൾ അതിലൊക്കെ കൂടുതലായിട്ടും അവർക്ക് ജോലി സാധ്യതയുള്ള കോഴ്സുകൾ കാര്യങ്ങളൊക്കെയാണ് അപ്പം കൂടുതലായിട്ടും ആൾക്കാർ എടുക്കുന്നതും അങ്ങനത്തെ കോഴ്സുകളും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടെടുക്കുന്നത്